ഹലോ ഇത് ഊബർ ടാക്സി ആണോ ആ ഞാൻ ഇവിടെ കാക്കനാട് ഇൻഫോ പാർക്കിലാണ് നിൽക്കുന്നത് മ് എനിക്ക് ലുലു മാൾക്കൊന്ന് പോകാനായിരുന്നു ഒരു വണ്ടി കിട്ടുവോ കുറേ നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് ആയി ഞാൻ ഈ ഫോണിലേക്ക് വിളിക്കുന്ന് ബിസി ആയിരുന്നു ഇപ്പോൾ ആണ് കിട്ടിയത് എനിക്ക് പോയിട്ട് വേഗം അത്യാവശ്യം ഉണ്ടായിരുന്നു തിരിച്ചുപോരുകയും വേണം അപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടുവോ നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴേക്ക് ഒരുപാട് സമയം ആവുമോ വണ്ടി ഇവിടെ അടുത്ത് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ സൗകര്യം ആയിരുന്നു എനിക്ക് പോയിട്ട് വേഗം തിരിച്ച് വരാനുള്ളതുമാണ് ഒരുപാട് നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു എത്ര സമയം വേണ്ടി വരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ